ഹലോ ഇത് ജിം ട്രെയ്നറല്ലേ അപ്പം എന്റെ പേര് ക്രിസ്റ്റാന്നാണ് അപ്പം എനിക്ക് അടുത്ത ദിവസം തൊട്ട് ജിമ്മിൽ വന്നാൽ കൊള്ളാമെന്നുണ്ട് അപ്പം അതിന്റെ ഡയറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിരുന്നു വിളിച്ചത് എന്റെ സ്ഥലം കുട്ടിക്കാനം അപ്പം എനിക്ക് അത്യാവശ്യം ഫാറ്റൊണ്ട് അപ്പം എനിക്ക് ഫാറ്റ് കുറക്കണമെന്നുണ്ട് അപ്പം ഞാൻ എന്തൊക്കെ ഡയറ്റാ എടുക്കേണ്ടത് അതായത് എത്ര ദിവസം കൊണ്ട് എന്റെ ശരീരത്ത് എത്ര ചെയ്താൽ കാണും അതായത് എത്ര എണ്ണം എടുക്കും ഞാൻ ഒരു ഫാറ്റക്കെ കുറഞ്ഞ് ഒരു ബോഡീക്കെ ഷേയ്പ്പാവാൻ അപ്പം ഈ അൺഹെൽത്തി ഇപ്പം കഴിക്കണ്ടാത്തതായിട്ട് എന്തൊക്കെയാണ് ഉള്ളത് ഫുഡ്ഡ് അതായത്

ഞാൻ ഇപ്പോൾ ഹോസ്റ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഹോസ്റ്റലീന്നക്കെ പറയുമ്പോൾ ഫുഡ്ഡ് പൊറോട്ടയൊക്കെ കിട്ടും അപ്പം അതൊക്കെ കഴിക്കാൻ പറ്റുമോ അതോ അതും നമ്മൾ വേണ്ടെന്ന് വെച്ച് അപ്പം അതെങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഒരു ഒരു ദിവസം നമ്മൾ എന്തോരം ഡയറ്റ് അല്ല എന്തോരം വർക്ക് ഔട്ടിനെത്ര മണിക്കൂറ് സമയമൊക്കെ അങ്ങനുണ്ടോ അപ്പം ഈ ഫാറ്റ് മോടെനിക്ക് കുറക്കണോല്ലോ അപ്പം മസിൽ ട്രേയ്ൻറ്റെ കൂടെ കാഡിയോകൂടെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആ ഓക്കെ അപ്പം നമ്മൾ എത്ര ആഴ്ച്ച എത്ര എത്ര ദിവസം വേണം ജിമ്മിൽ ഫീസക്കെയോ

ഈ കാഡ്യോ ചെയ്തിട്ട് മസിൽ ട്രേയ്ൻ ചെയ്യുന്നതാണോ അതോ മസിൽ ട്രേയ്ൻ ചെയ്തിട്ട് കാഡി ചെയ്യുന്നതാണോ വേറേഷ്യ നല്ലത് അപ്പം ഞാൻ ഇങ്ങനെ കുറെ പേർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് കാഡിയോ ആദ്യം ചെയ്യുമ്പം നമുക്ക് എനർജി ഫുള്ളവിടെ ലോസ്റ്റായി പിന്നെ മസിൽ ട്രേയ്ൻ ചെയ്യാനുള്ള എനർജി കിട്ടത്തില്ലാന്ന് അപ്പം അതെങ്ങനെയാണ് അപ്പം കാര്യങ്ങൾ ഓക്കെ താങ്ക് യൂ